ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും ആരോഗ്യപൂർണ്ണമായ ഒരു ഒരു ഭക്ഷണമാണ് ചിക്കൻ പുലാവ് ചിക്കൻ പുലാവ് എന്നു വെച്ചാൽ അത് കഴിക്കാൻ എൻ്റെ മക്കൾക്കും വളരെ ഇഷ്ടമാണ് അതു കൊണ്ട് എനിക്ക് അത് ചെയ്യാനും നല്ല ഇഷ്ടമുണ്ട് എങ്ങനെ ചെയ്യുന്നു എന്നു വെച്ചാൽ ആദ്യം നമ്മൾ ചിക്കൻ വാങ്ങി കഴിഞ്ഞിട്ട് അതിനെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് മുളകും മല്ലിയും മഞ്ഞളും ഉപ്പും പിന്നെ നാരങ്ങാ നീരെല്ലാം പുരട്ടിയിട്ട് വെക്കണം ഇങ്ങനെ പുരട്ടിയിട്ട് നല്ല വൃത്തിക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം വെച്ച് കഴിഞ്ഞാൽ അത് അതെല്ലാം ഇങ്ങനെ പിടിച്ച് കിട്ടും അപ്പോഴത്തേക്കും നമ്മൾ മറ്റേ റൈസ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈഗറിൻ്റെ നല്ല റൈസിൻ്റെ ചിക്കൻ ബിരിയാണിയിൻ്റെ ബിരിയാണി റൈസ് എടുത്തിട്ട് നല്ല പാവന കഴുകിയിട്ട് ഊറ്റിയിട്ട് വെക്കും ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനു വേറെ പച്ചക്കറി കുറച്ച് കൂട്ടിടാനുണ്ട് അത് എന്നു വെച്ചാൽ ഉള്ളി നീളത്തിലിങ്ങനെ അറിഞ്ഞ് വെക്കും പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കും പേസ്റ്റാക്കിയിട്ട് അങ്ങനെ വെക്കും പിന്നെ തക്കാളി പിന്നെ കോളി കോളിഫ്ലവർ പിന്നെ ബീൻസ് പിന്നെ ഇത് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ആദ്യം കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ബീൻസ് തക്കാളി കാരറ്റ് കാരറ്റ് ചെറുങ്ങനെ നേർത്ത് ചെറുങ്ങനെ അരിഞ്ഞിട്ട് വെക്കും അരിഞ്ഞിട്ടെല്ലാം വെച്ചു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ കുക്കറിലാണ് ഈ ചിക്കൻ പുലാവ് ഉണ്ടാകുന്നത് എന്നു വെച്ചാൽ എനിക്ക് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വേഗം ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ കുക്കറിലാണ് ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കും എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഗരമ്മസാലയിടും ഗരമ്മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക ജാതി ജാതിക്ക അതെല്ലാം ഇങ്ങനെ അഞ്ച് ഗ്രാം ജാതി പതൃ അതെല്ലാം ഗാരമ്മസാലയെല്ലാം ഇടും എല്ലാം അത് ഇട്ട് അതും പൊടി പൊടിയല്ല അതിൻ്റെ കഷ്ണങ്ങൾ തന്നെ ഇടലുണ്ട് എന്നിട്ട് അത് കുറച്ച് ഒന്ന് നല്ല സ്മെൽ വരുമ്പോഴേക്ക് ഞാൻ ഉള്ളിയിട്ടിട്ട് ഇങ്ങനെ വഴറ്റും ഉള്ളി വഴറ്റി കഴിഞ്ഞ ശേഷം പച്ചമുളകും പിന്നെ തക്കാളി മറ്റേ പച്ചക്കറി കാരറ്റ് കോളിഫ്ലവർ അതെല്ലാം ഇങ്ങനെയിട്ട് വഴറ്റി വഴറ്റും വഴറ്റി കഴിഞ്ഞിട്ട് ഗ്രീൻ പീസും കൂടിയിടും ഗ്രീൻ പീസും ഇട്ട് വഴറ്റി കഴിയുമ്പോഴേക്കാണ് കുറച്ച് നല്ല ഒരു കളറ്ങ്ങനെ കുറച്ച് മാറ്റം വരും അങ്ങനെ വയറ്റി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ റൈസ് ഇടല് റൈസ് ഇട്ടിട്ട് റൈസും കൂടി കുറച്ച് നല്ലവണ്ണം ഇങ്ങനെ വയറ്റും വയറ്റി ക കഴിഞ്ഞിറ്റ് പിന്നെ ചിക്കൻ ചിക്കൻ പീസിടും ചിക്കൻ പീസിട്ടിട്ട് കുറച്ച് ചിക്കൻ പീസിനെ അതിൻ്റെ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് തിളച്ച വെള്ളം തിളച്ചവെള്ളം ഒഴിക്കും തിളപ്പിച്ച് വെക്കണം വെള്ളം തിളപ്പിച്ച് വെക്കണം തിളപ്പിച്ച് വെച്ചിട്ട് തിളച്ചവെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും പിന്നെ ലേശം മഞ്ഞൾ പൊടി വേണമെങ്കിൽ കുരു കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് നമുക്ക് നമ്മളുടെ ടേസ്റ്റ് അനുസരിചിട്ട് കുറച്ച് ഒരു നാരങ്ങാ നീരും പിഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ ആകുമ്പോഴേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വിസിലിൻ്റെ കാറ്റെല്ലാം പോയി കഴിഞ്ഞ ശേഷം എടുത്തിട്ട് നമുക്ക് നല്ല ചൂടോടെ കുട്ടികൾക്ക് എല്ലാം സെർവ് ചെയ്യാൻ പറ്റും അതാണ് ചിക്കൻ പുലാവ് അത് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കുടുംബത്തിന് ഏറ്റവും നല്ല ഓർഗാനിക് എനിക്ക് പച്ച ചീരയാണ് കാരണം ഇല കറികൾ അധികം ഞാൻ ഉണ്ടാക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്കിലും ഇല കറികൾ ഞാൻ ഉണ്ടാക്കും കാരണം അത് നമ്മൾ പീടിയയിൽ നിന്ന് വാങ്ങലില്ല ഞാൻ തന്നെ സ്വന്തം ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഉള്ളതാണ് അപ്പം ചീര ചീര എന്നു വെച്ചാൽ ഞാൻ വേരോടെ പിഴുതെടുക്കുകയല്ല കുറച്ച് വണ്ണം ചെടി വണ്ണം വെക്കുമ്പോൾ അതിൻ്റെ തല ഭാഗം ഇത് മുറിച്ചെടുത്തിട്ട് നല്ലതു പോലെ കഴുകിയിട്ട് മുറിച്ച് വെക്കും ചെറുങ്ങനെ നേർങ്ങനെ അരിഞ്ഞ് വെക്കും അരിഞ്ഞ് വെച്ചിട്ട് ആദ്യം കടുകിട്ട് കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇത് തേങ്ങയിടും തേങ്ങയിടും പിന്നെ ഇത് ഉള്ളി ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടാകും ഉള്ളിയിടും തേങ്ങയിടും പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് അതിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റി കഴിഞ്ഞിട്ട് ഈ ചീര മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് അതിലേക്ക് ഇട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് മൂടിവെക്കും നല്ല വൃത്തിക്ക് സിം തീ സിമ്മാക്കിയിട്ട് മൂടിവെക്കും അപ്പോൾ അതിൻ്റെ ആവിയിൽ തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ വയറ്റി വയറ്റിയിട്ട് എടുക്കും അതാണ് ചീര ചീര എന്നു വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് അങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതായതു കൊണ്ട് കഴിക്കാൻ നല്ല രുചിയാണ് ആരോഗ്യകരമായ ഒരു ഭക്ഷണം ചീര പിന്നെ ഞാൻ ഉണ്ടാകുന്ന സാമ്പാർ സാമ്പാർ എന്നു വെച്ചാൽ സാമ്പാറിൽ നല്ല ചേനയെല്ലാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുന്നത് ചേന വഴുതനങ്ങ വെണ്ടക്ക അത് പീടികയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് വെള്ളയും ഷോപ്പിൽ നിന്നു വാങ്ങും പിന്നെ പരിപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങും അതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതു കൊണ്ട് വെള്ളരി ഇട്ടാൽ അവരുണ്ടാക്കി ആകുന്നില്ല അതു കൊണ്ടാണ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പിന്നെ മത്തൻ മുരിങ്ങക്കായും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് അതെല്ലാം എല്ലാ പച്ചക്കറിയും ആദ്യം പരിപ്പ് കഴുകിയിട്ട് വെച്ചിട്ട് പിന്നെ പച്ചക്കറിയെല്ലാം അറിഞ്ഞ് വെക്കും പച്ചക്കറി അറിഞ്ഞ് വെക്കുമ്പോൾ വെണ്ടയും തക്കാളിയും മുരിങ്ങക്കായും വേറെ തന്നെ വെക്കും ബാക്കിയെല്ലാം ഞാൻ കുക്കറിലിടലാണ് ചെയ്യുന്നത് ആ ഇത് കുക്കർ കഴുകിയിട്ട് പ പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇടും മത്തൻ ചേനയും പിന്നെ വെ വെള്ളരി വെള്ളരി പിന്നെ വഴുതനങ്ങ അങ്ങനെയെല്ലാം ഏകദേശം സാമ്പാറിന് ഞാൻ എല്ലാ പച്ചക്കറികളും ഇണ്ട പച്ചക്കറികളെല്ലാം ഇടും ഉരുള കിഴങ്ങ് ഒന്ന് കാരറ്റ് ഉണ്ടെങ്കിൽ കാരറ്റ് പിന്നെ എല്ലാം ഏകദേശം എല്ലാമിടും എല്ലാം ഇട്ടിട്ട് സാമ്പാർ ഒന്ന് കുക്കറിൽ വെച്ച് വിസിൽ വിസിലായി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഇറക്കി വെക്കും അപ്പോൾ ഞാൻ സാമ്പാറിന് സാമ്പാറിന് ഞാൻ വറുത്തരക്കാറാണ് ചെയ്യാറ് അപ്പോൾ മുളകും പിടിമുളകുണ്ടാകും മുളകും പിന്നെ മല്ലിയും തേങ്ങയും പിന്നെ ജീരകവും ഉലുവയും നല്ല വൃത്തിക്ക് വറുത്തെടുക്കും വറുത്തെടുത്തിട്ട് അത് അരച്ചെടുക്കും അരച്ചെടുത്തിട്ടാകുമ്പോഴത്തേക്ക് സ സാമ്പാറിൻ്റെ കഷ്ടങ്ങൾക്ക് അതിൽ കുക്കർ തുറന്നിട്ട് സാമ്പാറി അത് അടുപ്പത്ത് വെച്ചിട്ട് ഈ നമ്മൾ മാറ്റിവെച്ച വെണ്ടയും തക്കാളിയും മുരിങ്ങക്കായും എല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കും തിളപ്പിച്ചിട്ട് സാമ്പാറിൻ്റെ ഈ അരച്ച ഈ കൂട്ടും അര കൂട്ട് കൂട്ടിയിട്ട് ചെ ഇത് കൂട്ടി കഴിഞ്ഞ ശേഷം അത് തിളക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് സാധന ഇത് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ രണ്ട് കറിവേപ്പിൻ്റെ ഇല നുള്ളിയിട്ട് പറക്കി അതും പറക്കി എടുത്ത് ഇട്ടു കൊടുക്കും എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇറക്കി വെക്കും സാമ്പാറിന് പുളിയിടുന്നു ലേശം തേങ്ങാ അരക്കുമ്പോഴൊക്കെയാണ് പുളിയിടൽ എന്നിട്ട് സാമ്പാർ നല്ല സാമ്പാറാക്കിയിട്ട് വെക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എന്നു വെച്ചാൽ ഒരു മുരിങ്ങയില തോരൻ മുരിങ്ങയില തോരൻ എന്നു വെച്ചാൽ മുരിങ്ങയില നമുക്ക് ഉണ്ട് മുരിങ്ങ അതു കൊണ്ട് ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നു മുരിങ്ങയില തോരൻ അങ്ങനെ കുട്ടികൾ ക്ക് എല്ലാം നല്ല ഇഷ്ടമാണ് മുരിങ്ങയില പറിച്ചെടുത്തിട്ട് ഓരോ ഇതളായിട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് എൻ്റെ അമ്മ എനിക്ക് എല്ലാം പറിച്ചെടുത്ത് തരും പിന്നെ അതിന് ഉപ്പും മുള മഞ്ഞപൊടിയും ഇട്ട വെള്ളത്തിലിട്ട് വെക്കും കാരണം മുരിങ്ങയില എത്ര നമുക്ക് നോക്കിയാലും അത് നമുക്ക് ശരിയാകില്ല അതു കൊണ്ടാണ് അങ്ങനെയിട്ട് വെക്കുന്നത് ചെറിയ പുഴു എന്തെങ്കിലും ഉണ്ടേൽ ആ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടാൽ പോയിക്കിട്ടും പിന്നെ ഇതുപോലെ തന്നെ തേങ്ങ ചുരണ്ടിയിട്ട് ഉള്ളിയും കടുകെല്ലാം പൊട്ടി എണ്ണ വെച്ച് എണ്ണയിട്ടിട്ട് കടുകെല്ലാമിട്ട് കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ ശേഷം ഉള്ളിയിട്ട് അതിനെ വഴറ്റിയിട്ട് നമ്മൾ തേങ്ങയിട്ട് വയറ്റും അപ്പോൾ വെളുത്തുള്ളിയും ഒരു നാല്ലല്ലി ഇങ്ങനെ ചതച്ച് വെക്കും അതുകൂടിയിടും എന്നിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വീണ്ടും വയറ്റിയിട്ട് മുരിങ്ങയില ചിക്കി ചിക്കി ഇട്ടിട്ട് ചിക്കി ചിക്കിയെടുക്കണം അന്നിട്ട് മൂടിവെക്കും മൂടിവെച്ചു കഴിഞ്ഞാൽ ആവിയിലെല്ലാം വന്നിട്ട് നല്ല മുരിങ്ങയില തോരനായിട്ട് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ആരോഗ്യകരമായ വിഭവം